ഇപ്പം നമ്മുടെ സുഹൃത്തുക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ ആർക്കെങ്കിലും കായിക ഇനത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട് അപ്പം എവിടെ അത് എവിടെച്ചെന്ന് അന്വേഷിച്ചാൽ നമുക്ക് നല്ലൊരു ഇതിൽ പഠിക്കാമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നത് സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ തന്നെ അവർക്ക് അതാത് ട് അധ്യാപകർ അലോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പം പി ടി സാറമ്മാർ ഒക്കെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പി ടി ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും അപ്പം അവർ അവരെ അവരെ അവരുടെ കൂടെ നിന്ന് നമ്മൾ അതൊക്കെ പഠിച്ച്

ആ അപ്പം ആ നമ്മൾ ഇപ്പം അവിടെ ഇപ്പം പി ടി ടീച്ചേഴ്സിൻ്റെ ഒക്കെ കീഴിൽ ആവുമ്പോഴത്തേക്ക് അവർക്ക് ഡെയ്ലി പ്രാക്റ്റീസ് ഒക്കെ കിട്ടും അപ്പോൾ അവരുടെ ആ ഒരു കായികത്തോടുള്ള ഇഷ്ടം കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്യാം ആ അതിനുവേണ്ടി ആവശ്യമായിട്ടുള്ള ടെക്നിക്സ് എല്ലാം ടീച്ചേഴ്സ് പറഞ്ഞ് കൊടുക്കുവേം ചെയ്യും അപ്പം ഇങ്ങനെ ഓരോ ലെവൽ മത്സരത്തിലോട്ടൊക്കെ പോവുമ്പോഴത്തേക്കും അവരെ സംബന്ധിച്ചിടത്തോളം കോൺഫിഡൻസ് വർദ്ധിക്കുകയും ചെയ്യും അവർക്ക് അതിൻ്റെ ആ ഒരു ഇഷ്ടം വർദ്ധിക്കുവേം ചെയ്യും ഇപ്പം ഇപ്പം ഇൻറർ കോളേജ് മത്സരങ്ങൾ കഴിയുവേം അത് അതിൽ നിന്ന് വിജയികളായി പിന്നെ ജില്ലാ തല മത്സരങ്ങൾ സംസ്ഥാന തല മത്സരങ്ങൾ അങ്ങനെ ഇങ്ങനെ മത്സരിച്ച് മത്സരിച്ച് അവസാനം അവരെക്കൊണ്ട് നല്ലൊരു കായിക ഇനത്തിൽ അവർക്ക് ചേരാൻ സാധിക്കും ഒരൊരു കായിക ഇനത്തിൽ അവർക്ക് നന്നായി തിളങ്ങാൻ സാധിക്കും അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് അവരുടെ ഓരോ കോളേജിൽ അല്ലെങ്കിൽ ഓരോ സ്കൂളിൽ അതാത് ഒരു ടീച്ചേഴ്സ് കാണുമല്ലോ അപ്പം അവരെ നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം ഈ അപ്പം ആ ടീച്ചേഴ്സ് അവർക്ക് വേറെ വേറെ കോഴ്സുകളും അല്ലെങ്കിൽ വേറെ വേറെ എന്താണ് കായിക ഇനങ്ങളും അവർക്ക് അവരേക്കൊണ്ട് പരിചിതപ്പെടുത്തും ഇപ്പം ബാഡ്മിൻ്റൺ മാത്രം കളിക്കുന്ന ഒരു കുട്ടി ആണ് പക്ഷേ അവൾ അത് അത് പഠിക്കാൻ വേണ്ടിയാണ് വന്നതെങ്കിലും അവളെ ചിലപ്പം എന്താണ് ബാസ്കറ്റ്ബോൾ കളിക്കാനും ബാസ്കറ്റ്ബോളിനെ ഇഷ്ടപ്പെട് ഇഷ്ടപ്പെടാനും ആ ടീച്ചേഴ്സ് പ്രാപ്തരാക്കും അപ്പം ആ നമുക്ക് വ്യത്യസ്തമായ ഇനങ്ങൾ നമ്മുടെ ടീച്ചേഴ്സിൽ നിന്ന് പഠിക്കാൻ പറ്റും അപ്പം ഏറ്റവും നല്ലത് ഇങ്ങനെ പി ടി ടീച്ചേഴ്സിനെ ഒക്കെ നോക്കുന്നതാണ് പിന്നെ സ്പോർട്സ് സെൻററിലൊക്കെ പോവാം ഇപ്പം നമ്മുടെ ടീച്ചേഴ്സ് നമ്മൾ നല്ലതായിട്ട് പങ്കെടുക്കും നമ്മളെ കൊണ്ട് നല്ലൊരു കാലിബർ ഉണ്ട് അത് ചെയ്യാൻ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ തന്നെ നമ്മളെ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യും അപ്പം നമുക്ക് സ്പോർട്സ് സെൻററിലൊക്കെ പോയി അന്വേഷിക്കാം അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ജോയിൻ ചെയ്യാം അവ എല്ലാത്തിൻ്റെയും ഒരു ബേസിക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് സ്കൂളുകളിൽ നിന്ന് തന്നെയാണ് അപ്പം അവിടെ നിന്ന് തൊട്ടേ നമ്മൾ ഇതിന് പരിശീലനമൊക്കെ നേടി നേടി പിന്നെ നമ്മൾ നമ്മുടെ ടീച്ചേഴ്സ് വഴി ആണെങ്കിൽ തന്നെ നമുക്കൊരു സെൻററിൽ നമുക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ അങ്ങനെ ആ ഒരു അധ്യാപക അധ്യാപകൻ്റെ അല്ലെങ്കിൽ അധ്യാപികയുടെയോ കീഴിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കായികം നമുക്ക് ഒരു പ്രോത്സാഹനം അവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്